ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൂർത്തിയാക്കാനായിട്ട് എട്ട് എനിക്കെട്ടു മണിക്കൂറൊക്കെ വേണ്ടി വരും പക്ഷെ നോർമ്മൽ ഒരാൾക്കാണെങ്കിൽ കണ്ടിന്യുവസ്സായിട്ട് വായിക്കുകയാണെങ്കിൽ രണ്ടു രണ്ടര മണിക്കൂർ കൊണ്ട് അവർ വായിച്ചു കമ്പ്ളീറ്റാക്കും പിന്നെയെന്നു പറഞ്ഞയച്ചാലിപ്പം ആ പുസ്തകത്തിന് അടിസ്ഥനമായിട്ടായിരിക്കും എത്ര സമയം എടുക്കുമെന്നുള്ളത് പറയാൻ പറ്റുക ഇപ്പം ചെറിയയെന്തെങ്കിലുമൊരു ഷോട്ട് നോവലൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുമായിരിക്കും പിന്നെ ഒത്തിരി വലിയ സ്റ്റോറീസാണെങ്കിൽ നമ്മളൊത്തിരി അതിൻ്റേതായ ഒത്തിരി ഒത്തിരി ടൈം എടുക്കേണ്ടി വരും അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വായിക്കാനായിട്ടെന്തെങ്കിലും പ്രത്യേകിച്ച് ലക്ഷ്യമുണ്ടോയെന്നു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണമൊക്കെ സ്ട്രെസ് റിലീഫറാണ് വായനയെന്നു പറയുന്നത് ഞാനങ്ങനെ മനസ്സിലാക്കണൊരാളാണ് അപ്പോൾ വായിക്കുന്നതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ബുക്കൊന്നും വായിക്കത്തില്ല ഇടക്കൊക്കെ ഇങ്ങനെ വായിക്കുന്നതല്ലാതെ അങ്ങനേ വായിക്കുന്നൊരാളല്ല ഇതുപോലെന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ കൂടുതലും ബുക്ക് നോക്കിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്കങ്ങനെ ഇതിനേക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല അ പിന്നെ ബുക്ക് വായിക്കുന്നത് നല്ലൊരിതാണ് കാരണം നമ്മളൊത്തിരി നമ്മളൊത്തിരി തിങ്ക് ചെയ്യും ബുക്ക് വായിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഇപ്പം ബുക്ക് വായിച്ചാലാണ് നമുക്കെന്തെങ്കിലും പ്രത്യേകിച്ചൊരു നോളജുണ്ടാകുകയെന്നു പറയുക അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നേ നമ്മൾ ഇതുപോലെ എന്തുട്ടാ ബുക്ക് എടുത്തിട്ട് ഓര് വായിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റിടക്കു തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കേണ്ടി വരും അപ്പം കണ്ടിന്യുവസ്സായിട്ട് വായിക്കണൊരാൾക്കാണെങ്കിൽ വൺ അവർ അ ആൻഡ് ടു ആൻഡ് ഹാഫ് അവേർസിനുള്ളിൽ കമ്പ്ലീറ്റ്ലി വായിച്ചു കഴിയും പിന്നെ ബുക്ക് വായിക്കണതെന്നു പറഞ്ഞയച്ചാൽ ഇപ്പോൾ പലവരും പല ടൈപ്പായിട്ടാണ് വായിക്കുക ഇപ്പം ഇന്ന ഒരു ബുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണേ എനിക്ക് ഒരു കാളിയെന്നു പറഞ്ഞൊരു ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇതെനിക്ക് വായിക്കണ്ട പക്ഷെ എനിക്കത് വേണം വേണം വേണ്ടായികക്കെ വായിക്കത്തില്ലെ അപ്പം അങ്ങനെ വേണം വേണ്ടാക്കി വായിക്കുമ്പോഴത്തേക്കും എന്തുവാ ഒത്തിരി സമയമെടുക്കും ഉം അതെ ഇതിപ്പം നോർമ്മൽ അല്ലായിട്ടിതെനിക്ക് വേണം എനിക്കിത് വായിച്ചേ പറ്റത്തുള്ളു വായിച്ചേ തീരത്തുള്ളെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഫുള്ള് കമ്പ്ലീറ്റ് വായിച്ചു തീർക്കാൻ പറ്റുന്നതാണെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്